ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ഏർപ്പെടുന്നത് ചോദിക്കുമ്പം എന്താ പറയുക നമുക്ക് കുറേ വ്യായാമങ്ങൾ ചെയ്യാം കുറേ ഡയറ്റ് ചെയ്യാം പിന്നെ പുറത്ത് കളിക്കാൻ പോവാം അതായത് കൂട്ടുകാരോടും ഫാമിലിയോടും കൂടെ കളിക്കാൻ പോവാം ഫുട്ബോള് കളിക്കുന്നത് അങ്ങനെത്തെ പിന്നെ ജിമ്മീൽ പോവാം അങ്ങനെത്തെ കുറേ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന് ആരോഗ്യം നിലനിർത്താൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എന്താ പറയുക ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം പിന്നെ ഫുഡ് ക്രമീകരിക്കുന്നത് നമുക്ക് ഫുഡ് എന്തൊക്കെ നല്ല കാര്യം നല്ലത് മാത്രം കഴിക്കുക ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാതിരിക്കുക പിന്നെ വ്യായാമം നല്ലപോലെ ചെയ്യുക രാവിലെ എഴുന്നേറ്റ് ഓടാനോ നടക്കാനോ പോവുക ഒരു അര മണിക്കൂറെങ്കിലും എക്സസൈസ് ചെയ്യുക പറ്റുമെങ്കിൽ ജിമ്മിൽ അതായത് ജിമ്മിൽ പോവുക പിന്നെന്താ പിന്നെ അതായത് ദേഹം അനങ്ങുന്ന രീതിക്കുള്ള എന്തെങ്കിലും കളികളിൽ അതായത് ഇപ്പോൾ ഫുട്ബോൾ ആവട്ടെ വോളിബോൾ ആവട്ടെ ബാഡ്മിൻ്റൻ അങ്ങനെത്തെ കുറേ ഗെയിംസ് ഉണ്ടല്ലോ അപ്പം അതിലങ്ങനെ ഏർപ്പെടുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും